ഹലോ ടീച്ചറെ ഞാൻ ആതിരയാണെ ആ ടീച്ചറേ ഇന്നത്തെ എന്തൊക്കെ പ്രോഗ്രാമാ നമ്മൾ ചെയ്യാൻ പോവുന്നെ ആണല്ലേ ഇതിപ്പം എപ്പഴാ സമയം ഇതിൻ്റെ ആണോ ആ ഇപ്പോൾ എൻ്റെ പ്രോഗ്രാമ് ഏത് സമയത്ത് എനിക്ക് ആണെങ്കിൽ ഗ്രൂപ്പ് ഡാൻസ് ഒക്കെ ഉണ്ടായിരുന്നെ പിന്നെ എൻ്റെ ഒരു സിംഗിൾ പ്രോഗ്രാമും ആ ഓക്കെ ഓക്കെ ആ ആ ആ അത് ഞാൻ പ്രാക്ടീസ് ഞാനിപ്പഴും ഞാൻ ചെയ്തുകൊണ്ടിരിക്കുകയാ മ്മ് കുഴപ്പം ഇല്ല പഠിച്ചിട്ടുണ്ട് ആ ഓക്കെ ഓക്കെ ടീച്ചർ ആ ശരി ടീച്ചറെ പിന്നെ ഒരുപാട് പേരുണ്ടോ ഗ്രൂപ്പ് ആയിട്ട് ആ ആ ഇപ്പം ഭരതനാട്യത്തിന് എത്ര പേര വന്നിരിക്കുന്നത് ഭരതനാട്യത്തിന് ആ ആണല്ലേ ഇപ്പം ഏ എപ്പഴാ തുടങ്ങുന്നത് ഞാൻ മറന്ന് പോയായിരുന്നെ ആ ഞാനിപ്പം നോക്കി എൻ്റെ എൻ്റെ മേക്കപ്പ് ചെയ്യുന്ന സാർ ഇന്ന് വന്നില്ല അവർ കുറച്ച് കഴിഞ്ഞ് ഇപ്പോൾ ഉച്ചകഴിഞ്ഞാണല്ലോ എൻ്റെ പ്രോഗ്രാം അപ്പോൾ ഒരു പതിനൊന്നൊക്കെ ആവുമ്പഴെ ഉള്ളു അവരൊക്കെ വരത്തുള്ളൂ ഡ്രെസ്സ് ഒക്കെ എല്ലാം നോക്കി വച്ചിട്ടുണ്ട് പിന്നെ എൻ്റെ വേറെ കുറച്ച് കൂട്ടുകാരികൾ വന്നിട്ടില്ല അവരൊക്കെ വരുന്നതേ ഉള്ളു ഞാനൊക്കെ ഇപ്പം ഞാൻ തന്നെയാണെങ്കിൽ പ്രാക്റ്റീസ് ചെയ്ത് നോക്കുവാണ് ആ എന്നാൽ ശരി ടീച്ചറെ ആ ആ ഓക്കെ ടീച്ചർ ആണോ ആ ശരി ടീച്ചർ ആ ആ ഓക്കെ